ആംഗ്യഭാഷകളിലൂടെ സംസാരിക്കും മലയാളം സംസാരിക്കാൻ അറിയാൻ മേലാത്തവരോട് നമ്മൾ ആദ്യം ആംഗ്യഭാഷയിൽ സംസാരിക്കും പിന്നെ മലയാളം മലയാളം സം മലയാളത്തിൽ സംസാരിക്കും അതുപോലെ തന്നെ നമ്മൾ മലയാളോം ഇംഗ്ലീഷും കൂടെ സംസാരിക്കും പിന്നെ കൂടുതലും ബംഗാളികളൊക്കെ വരുമ്പോൾ അവരോടു നമ്മൾ ഹിന്ദി നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ചെറിയ ചെറിയ രീതി സംസാരിക്കും പിന്നെ കൂടുതലും ഇംഗ്ലീഷും മലയാളം കൂടെ കലർത്തി സംസാരിക്കും അതുപോലെ തന്നെ കൂടുതലും ആംഗ്യം ആംഗ്യം ആംഗ്യം കാണിക്കും പിന്നെ ഇപ്പം കൂടുതലും അന്യഭാഷക്കാർക്ക് ഇംഗ്ലീഷ് അറിയാത്തോണ്ട് അറിയാവുന്നോണ്ട് കൂടുതലും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് അന്യ നമ്മൾ ആര് വന്നാലുമിപ്പം ഇവിടെ തന്നെയാണ് ഷോ റൂമീ വന്നാലും ഇംഗ്ലീഷ്കാർ വന്നാൽ നമ്മൾ അറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് അവരോട് തട്ടിയിട്ടു അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് അവർക്ക് മുഷിപ്പ് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ മാ കൂടുതലും ഇംഗ്ലീഷിലാണ് സംസാരിക്കാറുള്ളത്